കണ്ണൂർ ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വെല്ലുവിളികളൊന്നും നേരിടുന്നില്ല ജനങ്ങൾക്ക് പൊതുവേ സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല പക്ഷേ വേറെയൊരു പ്രധാന കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കളെ സംബന്ധിച്ചെടുത്തോളം ഒരു തൊഴിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് അനുസൃതമായ ഉന്നതമായ ഒരു തൊഴിൽ മേഖല കണ്ടെത്താനായിട്ട് ഉള്ള ഫാക്ടറികളോ വ്യവസായങ്ങളോ കണ്ണൂർ ജില്ലയിൽ കുറവാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അപ്പോൾ തീർച്ചയായും ഒരു ഐ ടി കമ്പനികളോ അങ്ങനെയുള്ള വലിയ വലിയ വ്യവസായങ്ങളോ കണ്ണൂർ ജില്ലയിൽ കുറവാണ് അതൊരു വെല്ലുവിളി തന്നെയാണ് ഈ വെല്ലു ഈ വെല്ലുവിളി മൂലം ഈ പ്രശ്നം ഈ പ്രശ്നം മൂലം ഒട്ടേറെ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ മറ്റ് ഇവിടെ അടുത്ത് ഒന്നുമല്ലെങ്കിൽ തിരുവനന്തപുരം മറ്റു ജില്ലകളിലേക്ക് പോകുന്നുണ്ട് പിന്നെ കൂടുതൽ പേർ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഐ ടി ഉദ്യോഗം ഒക്കെ തേടിയിട്ട് ഇപ്പോൾ ആളുകൾ കൂടുതലും കണ്ണൂർ ജില്ലയിൽ നിന്നും കൂടുതലും കുറേ ആളുകൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് ധാരാളം ഗൾഫ് മേഖലകളിലേക്ക് ധാരാളം ആളുകൾ പോകുന്നുണ്ട് അതുകൊണ്ടു തന്നെ ഉന്നത വ്യവസായ മേഖലകൾ ഇവിടെ വരികയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് തൊഴിലിനുള്ള സാഹചര്യമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ഇവിടെ തന്നെ നിൽക്കും ജനങ്ങൾക്ക് ജീവിത നിലവാരം ഒന്നും കൂടെ കൂടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്